ആ ഞാൻ തയ്ക്കാനായിട്ട് എടുക്കുന്നത് തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു സാരി എടുക്കുവാണെന്ന് വരുകിൽ അതിൻ്റെ കളറിന് മാച്ച് ആകുന്ന ബ്ലൗസ് പീസ് എടുക്കും അതിൻ്റെ പിന്നെ സ്കേർട്ടിൻ്റെ തുണി എടുക്കും അങ്ങനെ ആ സാരിക്ക് അനുസൃണമായിട്ടുള്ളത് എടുക്കും അതുപോലെ തന്നെ ചുരിദാറ് ആണെങ്കിലും നമുക്ക് ഒരു തുണി എടുക്കാൻ പോയാൽ നമുക്ക് കാണുമ്പം ഏകദേശം എനിക്ക് ലൈറ്റ് കളറുകളൊക്കെ ആണ് ഇഷ്ടം കൂടിയ കളറുകളൊന്നും ഇഷ്ടം അല്ല ഞാൻ ഇരുനിറമുള്ള ആളാണ് അതുകൊണ്ട് എനിക്ക് കൂടിയ കളർ ഒന്നും ഇഷ്ടമല്ല പ്രായവും അതുകൊണ്ട് അതുകൊണ്ട് ലൈറ്റ് കളർ ആയിട്ടുള്ള തുണികളൊക്കെയാണ് ഞാൻ സാധാരണ സെലക്റ്റ് ചെയ്യാറുള്ളത് അപ്പം അതിന് മാച്ച് ചെയ്യുന്നതായ പിന്നെ ബ്ലൗസും അതിൻ്റെ സ്കേർട്ടും എല്ലാം എടുക്കും അതുപോലെ ചുരിദാർ ആണെങ്കിൽ അതിൻ്റെ ഇതെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ ആ പിള്ളേർക്ക് ഒക്കെ ആണെന്ന് വരുകിൽ മോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം അവർക്ക് യൂണിഫോം ആയിരുന്നു അപ്പം ആ യൂണിഫോമിന് പറ്റിയ കളേഴ്സ് ഉള്ള സ്കേർട്ടും ബ്ലൗസും എല്ലാം എടുത്ത് തയ്ച്ചു കൊടുക്കുമായിരുന്നു ആ പിന്നെ ഇപ്പം വന്നപ്പം അവരും എല്ലാം പിന്നെ ചുരിദാറും ഒക്കെ ആണല്ലോ ഉപയോഗിക്കുന്നത് അവർക്കും അവരുടെ കളറിൻറേത് അനുസരിച്ചിട്ടുള്ള ഇതെല്ലാം പ് ചൂസ് ചെയ്യാറുണ്ട് പിന്നെ നെയ്ത്തിലേതെന്ന് പറയുമ്പോൾ നെയ്ത്തിലേത് ഇതൊക്കെ കുട്ട പായ അങ്ങനെയൊക്കെ ഉള്ളതായതുകൊണ്ട് അതിന് പിന്നെ പ്രത്യേകിച്ച് കളർ പാറ്റേൺസ് ഒന്നും പറയാനില്ലല്ലൊ നമുക്ക് തുണികളിലേതൊക്കെ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെയാണ്